കൂടുതൽ എഴുതാനുള്ള കാര്യങ്ങൾ സാമൂഹ്യ സേവനവും ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളാണ് അതേപോലെ ഞാൻ നേരത്തെ പല സ്ഥലങ്ങളിലും സൂചിപ്പിച്ചിടാറുള്ളത് പോലെത്തന്നെ നമ്മുടെ സമൂഹം കുത്തഴിഞ്ഞു പോകുന്നൊരു സമയത്താണ് രാമായണം രചിക്കപ്പെട്ടത് കാരണം അത് ആ കുത്തഴിഞ്ഞു പോകുന്ന ഒരു സമൂഹത്തിന് ആളെല്ലാം മദ്യപാനത്തിന് അടിമകളായി മാറുകയും അങ്ങനെ പോകുന്നവരെ എല്ലാം ഏകോപിപ്പിച്ചു കൊണ്ടുവന്ന് ഒരു നല്ല മനുഷ്യനാക്കി മാറ്റുക എന്നുള്ള രീതിയിലാണ് അതിന് ഒരു പ്രമേയം കൊണ്ടു വന്നു അതിൻ്റെ ഒരു ദൈവികമായിട്ടുള്ള എന്തെങ്കിലും കൂടെ അതിനകത്ത് കടത്തിയാൽ മാത്രമേ ജനങ്ങൾക്ക് അത് ഇഷ്ടം ഇഷ്ടപ്പെടാനും ഉൾക്കൊള്ളാനും കഴിയുള്ളൂ അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷേ എഴുത്തച്ഛൻ അധ്യാത്മരാമായണം നേരത്തെ രാമായണമാണ് ഉണ്ടായിരുന്നത് ആ രാമായണത്തെ ആധ്യാത്മികമായി ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താക്കവണ്ണം ആദ്ധ്യാത്മരാമായണമാക്കി മാറ്റിയത് അപ്പോൾ അങ്ങനെ ഒരു സമൂഹത്തിന് മെച്ചപ്പെടുത്തിയെടുക്കാന്നുള്ളതാണ് അതിനകത്തുള്ള ദുഷ്ട സ്വഭാവങ്ങളും ദുഷ്ടുകളൊക്കെ മാറ്റിയെടുത്ത് ആ രീതിയിലുള്ള കാര്യങ്ങൾ എഴുതുക എഴുതാനും ഒക്കെ ആണ് എനിക്ക് വളരെ താൽപര്യം അത് തന്നെയാണ് എനിക്ക് സമൂഹത്തോടും പറയാനുള്ളത്